ഹലോ ഇത് ഹോസ് രബിയ ഹോസ്പിറ്റലല്ലേ ആ എനിക്ക് ഇടത്ത് ഭാഗത്ത് നെഞ്ചിൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് നെഞ്ച് ഒരു വേദന വരുന്നുണ്ട് അത് ഒന്ന് ഡോക്ടറെ കാണിക്കാനായിട്ടാണ് ഏത്

ഞാനാ പ കോട്ടയം കോട്ടയത്താണ് ആ ആ അല്ല അത് ഏത് ഡോക്ടറാണ് ചെസ്റ്റിൻ്റെ നല്ല ഡോക്ടറാ ഫിസിഷനാണോ എന്താണ് ആ ഉണ്ട് ആ ആ ആ കാണാൻ കാണാൻ പറ്റും ആ ആ ആ ആ പിന്നെ

ഉണ്ട് വേദനയുണ്ട് വേദനയുണ്ട് ചെറുത് ചെറിയൊരു ചെറിയൊരു പെരുപ്പ് പെരുപ്പ് രാവിലെ ഞാൻ ഇടിയപ്പവായിരുന്നു ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു ആ ആ ഇല്ലില്ലില്ല ഗ്യാസിൻ്റെ ഇല്ലില്ലില്ല ഗ്യാസിൻ്റെയൊന്നും പ്രയാസം ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല

മൂന്ന് ഡോക്ടേഴ്സുണ്ട് നല്ല ആ ആ ആ ആ എപ്പം

ആ ആ ആ അത് ഇത് എപ്പോഴത്തേക്കാണ് സമയം പറ വരേണ്ടത് എപ്പോൾ സമയം രണ്ട് മണി രണ്ട് മണി ആ ആ വരാം വരാം ആ ഡോക്ടറ് ഇത് എവിടുള്ള എവിടുള്ള ഡോക്ടറാത് എവിടുന്ന് ആ അത് അറിയത്തില്ല അറിയത്തില്ല ആണ് ഒന്ന് അതെല്ലം ഉണ്ട് ആ ഉണ്ട് ആ ആ ആ ആ ആ ആ ആ കാണിക്കേണ്ടി വരുമല്ലേ ഉവ്വ് ഉവ്വ് ആ ആ ഇല്ല ചെറിയൊരു ചെറിയൊരു ഇല്ലില്ലില്ല ചെറിയൊരു വേദനയായിട്ടേ ഉള്ളൂ അല്ല അങ്ങനെ കൂടുതലായിട്ടുണ്ടാവുന്ന കാഷ്വാലിറ്റീൽ ആ ഇന്നലെ വൈകീട്ട് തൊട്ട് തുടങ്ങി ഇന്ന ഇന്നലെ വൈകീട്ട് തൊട്ട് തുടങ്ങി ഇന്നലെ ഇന്നലെ ഇന്നലെ ഇന്നലെ ആ ഇന്നലെ വൈകീട്ട് വൈകീട്ട് ഇല്ലില്ലില്ല ഇല്ലില്ലില്ല ഇല്ല ഇല്ല ആ ഉണ്ടുണ്ടുണ്ടുണ്ട് ഉണ്ട് ഉണ്ട് ഇല്ലില്ല ഇല്ലില്ലില്ല ഇല്ല ആ ആ ഇല്ല ഷുഗറൊന്നും ഇതുവരെ നോക്കീട്ടില്ല ഇല്ല ആ പ്രഷർ ഇല്ല ബി പി ചെറുതായിട്ട് നൂറ്റിയിരു ആ ഇല്ലില്ലില്ല ആ ഉണ്ടുണ്ടുണ്ട് ഞാൻ ഇത് ഒരു ഗുളിക കഴിക്കുന്നുണ്ട് അത് കൊളസ്ട്രോളിച്ചിരുണ്ടതിൻ്റെ ചെറിയൊരു ആ ഉണ്ട് ആ ആ മരുന്ന് ചെറുതായി ചെറിയൊരു മരുന്നെഴുതി തന്നോട്ടെ ആ അതൊരു ഒരു വർഷവായിട്ട് കഴിക്കുന്നുണ്ട് ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ ഈ എൻ്റെ കൊളസ്ട്രോള് നോക്കിയപ്പോൾ കൊളസ്ട്രോള് നോക്കിയപ്പോൾ എച്ച് ഡി എല്ലുന്നുള്ളൊരു സംഭവമുണ്ടത് കൊണ്ട് അത് അതിച്ചിരി കൂടുതലാന്ന് പറഞ്ഞായിരുന്നത് കൊ ആ ആ ആ ആ അതുകൊണ്ടാണ് ഞാനാ ഗുളിക കഴിക്കാൻ തുടങ്ങിയതൊരു അസാറ്റ് ടെന്നെന്നാ ഗുളികയുടെ പേര് അസാറ്റ് ടെൻ ആ ആ ആ ശരി ശരി ശരി

ആ കണ്ട്

ആ ഓക്കെ

ആ ശരി ശരി എന്നാൽ ഓക്കെ ഓക്കെ ശരി ശരി ശരി ശരി ഓക്കെ